എന്റെ ഭാതൃഭാഷയെ ഞാന് വായിച്ച പുസ്തകത്തിന്റെ പേര് ആട് ജീവിതം എന്നാണ് ആട് ജീവിതം എന്ന് വെച്ചാൽ ഒരു ലോകപ്രശസ്തമായ ഒരു നോവലാണ് അതിൽ നജീബിന്റെ കഥയാണ് പറയുന്നത് ഒരു വളരെ നല്ലൊരു പുസ്തകമാണത് വായിക്കുമ്പം നല്ല ഒരു സര്വൈവല് കഥ പറയുന്ന ഒരു നോവലാണ് അത് എല്ലാവര്ക്കും ഇഷ്ടപ്പെടും കാരണം വായിച്ചിരിക്കുന്ന ആളെ പിടിച്ചിരുത്താനൊരു കഴിവ് ആ ബൂക്കിനുണ്ട് ഈ എയുതിയ ആളും നല്ല രീതിയിലാണ് എയുതിയേക്കണത് അയാളുടെ കഥ എന്ന് വെച്ചാല് അത്രയും എന്ന് വച്ചാൽ ജീവിതാനുഭവം പറയുന്ന ഒരു കഥയാണ് അപ്പം കഥ പറയുണ്ട് എല്ലാവരും അനുഭവിക്കാത്തതും ഒരിക്കലും അനുഭവിക്കരുതും എന്ന് പറയുന്ന ഒരു കഥയാണത് നമുക്ക് അത്രയും നല്ലൊരു സ്റ്റോറിയാണത്